ഇപ്പോൾ ഞാൻ കൃഷിയിടത്തില് വളരെയധികം സമയം ചെലവഴിക്കുന്നുണ്ട് ഈ സമയം ചെലവഴിക്കുന്നയിലൂടെ എനിക്ക് മനസ്സിനു വളരെയധികം സന്തോഷവും ആനന്ദകരവുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെത്തന്നെ കൃഷിയില് ഞാന് കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രികരിക്കുന്നത് ജൈവ കൃഷിയിലാണ് ഈ ജൈവ കൃഷിയിലൂടെ നമ്മള് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അതിന്നൊരു പ്രത്യേക അനുഭൂതിയാണ് ലഭിക്കുന്നത് ഈ കീടനാശിനി പ്രയോഗം ഒട്ടും ഇല്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയ ഒരു പ്രത്യേകത ഇതിലൂടെ നമുക്ക് ആരോഗ്യകരമായിട്ടുളള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ലഭിക്കുന്നത് അതുകൊണ്ടുതന്നെ നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ജൈവ കൃഷി വളരെയധികം സഹായിക്കുന്നൊണ്ട്